ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ കോവിഡിൻ്റെ സമയത്താണല്ലോ കൂടുതലും ഓൺലൈൻ ക്ലാസ്സ് ഉണ്ടായിരുന്നത് അതിനു മുൻപെ സ്കൂളിൽ പോയുള്ള പഠിത്തങ്ങളൊക്കെയല്ലായിരുന്നോ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സ് വഴി കോവിഡ് വന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സ് നടത്തിയാണ് കുഞ്ഞുങ്ങളെങ്ങനെ പഠിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ അല്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങൾക്കു പഠിക്കാൻ സാധിക്കുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സു വഴി മറ്റുള്ള പഠിത്തം അല്ലാതെ പിന്നെ ഫോൺ വഴി ആണെങ്കിലും യൂട്യൂബ് വഴി ആണെങ്കിലും അങ്ങനെ ക്ലാസ്സ് കാണുകയും അങ്ങനെയൊക്കെയായിട്ട് സ്കൂളിൽ പോയുള്ള പഠിത്തമേ കുഞ്ഞുങ്ങൾക്ക് സമയത്ത് ഇല്ലായിരുന്നു പിന്നെ അത് ഒത്തിരി നേട്ടമായിരുന്നു ഓൺലൈൻ ക്ലാസ്സ് വഴി ആണെങ്കിലും ഫോൺ വഴി ആണെങ്കിലും പഠിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ വീട്ടിൽ വീട്ടിലിരുന്നാണെങ്കിലും അങ്ങനെ ഓൺലൈൻ ക്ലാസ്സായിട്ട് പടിക്കേം അങ്ങനെ പഠിപ്പിക്കുന്നനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് പടിക്കേം ചെയ്യാരുന്നു ഇപ്പോഴാണേലും ക്ലാസ്സ് ഇടക്ക് എടേ എടസമയത്തൊക്കെ ആണേലും ഓൺലൈൻ ആയിട്ടൊക്കെ ക്ലാസ്സ് എടുക്കുമ്പോഴത്തേക്ക് ഫോണിനകത്തങ്ങനെ കളിക്കും അല്ലാതെ ഇപ്പോൾ ഒത്തിരി നേട്ടമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് ഓൺല ആകുമോ ഫോൺ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് അതൊത്തിരി നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതിനകത്തു നിന്നു മാറാൻ പറ്റുന്നില്ല ആ ഒരുമാതിരി ആയിപ്പോയി പിന്നെ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സ് ക്ലാസ്സ് കൂടിയതിനോടേതുകൂടി ഫോൺ പിള്ളേർക്ക് മാറ്റാൻ പോലും പറ്റാത്ത ഒരു ഇതാണ് എപ്പോഴും ഫോൺ ഫോണിൻ്റെ ഉപയോഗം പിന്നെ എല്ലാം അതിൽ നിന്നും ഒത്തിരി ഒത്തിരി മാറ്റി ഇപ്പം സ്കൂളിൽ ക്ലാസ്സ് തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ഒക്കെ ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും നല്ല നല്ല ഒരു ഇതായിരുന്നു ഓൺലൈൻ ക്ലാസ്സ് പക്ഷേ അതിനനുസരിച്ച് നമുക്ക് പിന്നിപ്പോൾ ക്ലാസ്സ് തുടങ്ങിയതു കൊണ്ട് അതു കുഴപ്പമില്ലയെന്നു മാത്രമല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ലരീതിയിൽ പോകുന്നു എല്ലാരീതിയിൽ പക്ഷേ ഒത്തിരി നല്ല ഇതിൽ സഹായിച്ചിട്ടുണ്ട് ഓൺലൈൻ ആയിട്ട് ക്ലാസ്സ് ഫോൺ വഴി ആണെങ്കിലും നല്ലരീതി ഇതാണ്